ഞാൻ പലപ്പോഴും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കി പരാജയപ്പെട്ടിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണി അത് ഞങ്ങളൊരിക്കൽ ബാംഗ്ലൂര്ന്ന് തലശ്ശേരിക്ക് വരുന്ന സമയത്ത് യെശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻന്ന് നമ്മൾ പാർസലായിട്ട് ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു അത് ഒരു രക്ഷയില്ല അത്രയും രസത്തിലാണ് അവർ ആ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കി എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് യൂട്യൂബ് വീഡിയോ നോക്കി എങ്ങനെയാണ് ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടക്കണതെന്ന് അപ്പോൾ ഓരോ വീഡിയോയും ഓരോ രീതിയിലാണ് അവർ ബിരിയാണി ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ ഓരോ തരത്തിലും വീഡിയോ നോക്കീട്ട് ഓരോ രീതിയിലുള്ള ബിരിയാണി വെച്ച് നോക്കി പക്ഷേ എന്താന്നറിയില്ല ആ ഒരു ടേസ്റ്റിലുള്ള ബിരിയാണി എനിക്ക് കിട്ടുന്നേ ഇല്ല ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കീട്ട് ചിലപ്പം അത് പരാജയപ്പെടുന്നത് കൊണ്ടാവാം അങ്ങനെ വരുന്നത് പക്ഷേ എന്തായാലും ഞാൻ ഇത്രയും കാലമായിട്ടുണ്ടാക്കി നോക്കിയിട്ടും ആ ഒരു രുചിയിലുള്ള ബിരിയാണി എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരിക്കലും ആ ഒരു സ്വാദ് ഞാൻ മറക്കില്ല കാരണം അത്രയും സ്വാദായിരുന്നു അന്ന് അവർ പാർസല് വാങ്ങിയ സമയത്ത് ആ ബിരിയാണിക്ക് ഉണ്ടായിരുന്നത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടായിരുന്നു അവർ അന്ന് ആ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കി തന്നത് തന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പലപ്പോഴായിട്ടു ഉണ്ടാക്കി നോക്കി ശരിയാവാത്ത ഒരു ഭക്ഷണമാണ് കബ്സയും കുഴിമന്തിയും പിന്നെ കുഴിമന്തിക്ക് കൂടുതൽ സമയവും ഒക്കെ ആവശ്യമായത് കൊണ്ട് എനിക്ക് കുഴിമന്തി ഉണ്ടാക്കാൻ എന്താ ചെറിയൊരു മടിയുണ്ട് പിന്നെ അത് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും ഈ കുഴിമന്തിയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ട്ടമല്ല അപ്പം എനിക്കും വലിയ ഇഷ്ടവൊന്നുവല്ല പക്ഷേ എന്നാലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് വിജയിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് കുഴിമന്തി എന്ന് പറയുന്നത് അത്പോലെതന്നെ കബ്സ കബ്സ എടക്ക് ഏതെങ്കിലുമൊക്കെ കല്യാണ വീടുകളിൽ ഒക്കെ പോവുമ്പം കിട്ടുന്ന കിട്ടുമ്പോഴാണ് ആ ആകെ കബ്സ കഴിക്കാറുള്ളത് കുഴിമന്തി ആയാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പഴൊ അങ്ങനെ എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോവുമ്പോൾ കാ ഭക്ഷണം കഴിക്കുമ്പോഴാണ് എന്ത് ഈ കുഴിമന്തിയും കഴിക്കാറുള്ളത് അല്ലാതെ കഴിക്കാറില്ല കാരണം വീട്ടിൽ ആരും തന്നെ ഈ ഭക്ഷണം കഴിക്കാറില്ല ആർക്കും അതിൻ്റെ സ്വാദിഷ്ടമല്ല പക്ഷേ എനിക്ക് എപ്പോഴെങ്കിലൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ അടുപ്പിച്ച് കഴിക്കാൻ എനിക്ക് ഈ കുഴിമന്തി ആയാലും കബ്സ ആയാലും എനിക്കിഷ്ടമല്ല പക്ഷേ ബിരിയാണി ഇഷ്ടാട്ടൊ ബിരിയാണി ആഴ്ചയിൽ ഒരു മൂന്ന് തവണ കഴിക്കാൻ ആയാലും എനിക്കത്ര ഇഷ്ടമാണ് കാരണം നല്ലൊരു ടേസ്റ്റാണല്ലൊ ബിരിയാണിക്ക് ഇനിയിപ്പം അതിൽ എറച്ചിയില്ലെങ്കിൽ കൂടിയും ബിരിയാണീൻ്റെ ആ ഒരു ചോറ് മാത്രം മതി വെറുതെയിരുന്ന് കഴിക്കാൻ നമുക്ക് പറ്റും കാരണം അതിനൊരു സ്വാദുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് പരാജയപ്പെട്ടിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ ഈ എനിക്കറിയില്ല എന്ത് കൊണ്ടാണ് കബ്സയും അത്പോലെതന്നെ കുഴിമന്തി ഒക്കെ ആളുകൾ ഇത്രയും ടേസ്റ്റ്ന്ന് പല ആളുകളും വളരെ എളുപ്പത്തിൽ ഇത് ഈ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് എങ്ങനുണ്ടെന്ന് സ്വാദ് സ്വ സ്വാദ് നോക്കാൻ തരുമ്പോഴാണ് അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും അയ്യോ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടെന്താ ശരിയാവാത്തതെന്ന് അപ്പം ഇപ്പോഴെല്ലാം അതിൻ്റെ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് പാക്കറ്റിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനും കുറച്ചും കൂടി എളുപ്പമാണ് ഒക്കെയാണ് പക്ഷേ ഉണ്ടാക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാവണം ഇതുവരെ ഇത്രയും കാലം പരീക്ഷിച്ച് നോക്കിയിട്ടൊന്നും ഈ രണ്ട് പാചകവും എനിക്ക് ശരിയായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയ ഒന്നാണ് ഇത് സാൻഡ് വിച്ച് അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പം അത് വിജയിച്ചിട്ടുണ്ടാരുന്നു പക്ഷേ അത് ഞാൻ തന്നെയാണ് കഴിച്ചത് കാരണം വീട്ടിലുള്ള ആ ആളുകൾക്ക് ഈ ഫാസ്റ്റ് ഫുഡൊന്നും കൂടുതൽ ഇഷ്ടമല്ലാത്ത ആളുകളാണ് അപ്പം അതുകൊണ്ട് പലപ്പോഴും പിൻ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ ഞാൻ പരീക്ഷിക്കാറുള്ളു പിന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അത് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾ ഇല്ല അപ്പം അത്കൊണ്ട് എനിക്ക് അത് അതൊരു എന്താ പാചകം ഉണ്ടാക്കുന്ന പാചകം ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഒരു ഭക്ഷണം ഇഷ്ടായില്ലെങ്കിൽ പിന്നെ അത് നമുക്കായിട്ട് പിന്നെ വെക്കേണ്ടി വരില്ലെ അപ്പം അത് ഒരു വിഷ്മമായിട്ട് തോന്നാറുണ്ട് അപ്പം അങ്ങനെ ഒരു വിഷമം ഉള്ളത് കാരണം ഞാൻ കൂടുതൽ മറ്റുള്ളവർക്കും കൂടി ഇഷ്ടപ്പെടാത്ത പരീക്ഷണത്തിൽ ഞാൻ നിൽക്കാറില്ല കാരണം അതിന് ഒരുപാട് സമയം ആവശ്യമാണ് അതിപ്പത്തന്നെ കുറെ സാധനങ്ങൾ ആവശ്യമാണ് അപ്പോൾ അതിന് ഒരുപാട് പൈസ നമ്മൾ കൊടുത്തിട്ടായിരിക്കും സാധനങ്ങൾ വാങ്ങേണ്ടി വരുക അപ്പം അങ്ങനെക്കെ നോക്കീട്ട് ഞാൻ എന്താണ് കുറെ ഇത്പോലെ തന്നെ ആഗ്രഹിച്ച പല ഭക്ഷണങ്ങളും ഞാൻ ഉണ്ടാക്കി നോക്കാതെ ഇരുന്നിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാരും പറയുന്നുണ്ട് ആ ഒരു രുചി ഒരിക്കലും ഞാൻ മറക്കില്ലാന്നുള്ളത് പക്ഷേ അത് ഇത്രയും കാലായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടും എന്താന്നറിയില്ല ആ ഒരു സ്വാദിലേക്ക് പാചകം അങ്ങോട്ട് വരുന്നില്ല അതിൽ ഭയങ്കര അത്യാവശ്യം എരിവും എനിക്ക് തോന്നുന്നു കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു ബിരിയാണി അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അതും എത്ര പെട്ടെന്നാറിയോ അവരുണ്ടാക്കിയത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് അവർ അന്ന് ആ ആ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ സാധാരണയായി ഹൈദരാബാദി ബിരിയാണിയിൽ ഞാൻ ഉണ്ടാക്കുന്ന വരുമ്പോൾ കാണാറ് എല്ലാവരും തൈര് ഒഴിക്കാറുണ്ട് പക്ഷേ തൈര് വിരുദ്ധാഹാരാണെന്നും പറയുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഹൈദരാബാദി ബിരിയാണികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ തൈര് ഒഴിക്കുമ്പം അത് വിരുദ്ധാഹാരം ആവില്ലേന്നുള്ള ഒരു തോന്നൽ എനിക്ക് വരാറുണ്ട് പക്ഷേ എനിക്ക് ചിക്കൻ ബിരിയാണി അഥവാ ചിക്കൻ ബിരിയാണി വലിയ ഇഷ്ടമല്ല പിന്നെ അതീ ബ ഈ ബസ്മതി റൈസില് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് വേറെത്തന്നെ ഒരു ടേസ്റ്റാണല്ലൊ പക്ഷേ എനിക്ക് ചിക്കൻ ബിരിയാണിക്കാളും ഇഷ്ടം ബസ്മതി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന വെജിറ്റബിൾ ബിരിയാണിയാട്ടൊ അതാ നീളത്തിലുള്ള അരിയും അതിങ്ങനെ വേറിട്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും പിന്നെ ആ പിന്നെ ഒരു ഒരു ബിരിയാണിയും കൂടി ഉണ്ട് തലപ്പക്കാട്ടി ബിരിയാണിയില്ലെ അത് വേറെ തന്നെ രീതിയാണ് അത് അതെനിക്ക് ഉണ്ടാക്കി നോക്കണംന്ന് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണമാണ് തലപ്പക്കാട്ടി ട്ടി ബിരിയാണി എന്ന് പറയുന്നത് അത് ദണ്ഡിഗൽ ബിരിയാണീന്നും പറയും പല ആളുകൾക്കും ഇഷ്ടമാണ് എന്നാണ് ചില ആളുകൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കാരണം അത് ഉണ്ടാക്കുന്ന രീതി ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് അതിൽ ഒരുപാട് കുരുമുളക് അത്പോലെ ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള ഒരുപാട് നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് ഈ ത ഈ തലപ്പക്കാട്ടി ബിരിയാണി എന്ന് പറഞ്ഞത് ഒരിക്കലും ഞങ്ങൾ തലശ്ശേരീന്ന് കൊച്ചിയിൽ പോയ സമയത്ത് കൊച്ചി പനമ്പള്ളി നഗർൽ ഇതിൻ്റെ ഒരു ഷോപ്പുണ്ട് തലപ്പക്കാട്ടി ദിൻടികൾ ബിരിയാണീടെ അവിടെ പോയിട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഒരു മട്ടൻ സൂപ്പും അടിപൊളിയാണ് ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റാണ് അതിന് അപ്പം ഇങ്ങനെ ഉള്ള ബിരിയാണി ബിരിയാണികളിൽ ഇതും എനിക്കിഷ്ടമാണ് പക്ഷേ ഞാൻ ഇനിയിപ്പം ഉണ്ടാക്കി നോക്കാൻ ആഗ്രഹിക്കുന്നത് ഈ തലപ്പക്കാട്ട് ദണ്ഡിക്കൽ ബിരിയാണി ആണ് സക്സസ് ആവാത്ത ഒരു ബിരിയാണി എന്ന് പറയുന്നത് ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണി ആണ്